മോനെ നമ്മൾ ഇപ്പോൾ ഇവിടം വരെ കാഞ്ഞാറു വരെ വന്നതിനു ഇപ്പോൾ എത്ര രൂപ ആയി മോനത് രൂപ ആയിട്ട് വേണോ ഗൂഗിൾ പേ ആയിട്ട് വേണോ എന്റെയിൽ രൂപ ആയിട്ടേ ഉള്ളു ഗൂഗിൾ പേയുടെ പരിപാടി ഒന്നും എനിക്കറിയത്തില്ല അത് എങ്ങനാണ് വേണ്ടതെന്ന് മോൻ എങ്ങനെയെന്ന് എന്നോട് പറയ് അതനുസരിച്ചു കൈകാര്യം ചെയ്യാം